ഹൈക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം തീർച്ചയായിട്ടും മലകൾ തന്നെയാണ് കാരണം എന്തെന്നാൽ അങ്ങോട്ട് പോകുന്നതിന് ഇടയ്ക്കുള്ള യാത്ര അതി മനോഹരമായിരിക്കും മരങ്ങൾക്കും കാടുകൾക്കും മരങ്ങൾക്കും ഇടയിലൂടെ സൗഹൃത്തുക്കളുമായി ചെറിയ സൗഹൃദ സംഭാഷണങ്ങളുമായി നടക്കുന്നത് എപ്പോഴും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ മറക്കാനും സാഹചര്യങ്ങൾ പുതിയ സാഹചര്യങ്ങൾ ആസ്വദിക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഹൈക്കിംഗ് പോകുമ്പോൾ ഇപ്പം അങ്ങോട്ടുള്ള യാത്രകൾ പലപ്പോഴും ദുഷ്കരണമാണെങ്കിൽ പോലും മുകളിൽ എത്തിയതിന് ശേഷമുള്ള കാഴ്ചകൾ തീർച്ചയായിട്ടും അതിമനോഹരം തന്നെയായിരിക്കും പൊക്ക മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോഴെല്ലാം സൗന്ദര്യം അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒന്നല്ല അതുപോലെ മലയുടെ മുകളിൽ നിന്ന് കാണുന്ന സൂര്യാസ്തമയം ആയാലും സൂര്യോദയം ആയാലും അ ആ സമയത്ത് പ്രകൃത്യിൽ ഉണ്ടാവുന്ന ഒരു സൈലെൻസ് ഒരു നിശബ്ദത പിന്നെ പ്രകൃതിടെ ഒരു നിറം ഇതെല്ലാം നമുക്ക് മനസ്സിന് കുളിർമ നൽകുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ആസ്വദിക്കാൻ നമുക്ക് പോവുന്ന യാത്ര ദുഷ്കരം പാടാണെങ്കിൽ പോലും ഈ കാഴ്ചകളും നമുക്ക് ആ കാഴ്ചകൾ നമ്മുടെ മനസ്സിന് തരുന്ന അനുഭൂതിയും വളരെ വളരെ വലുത് തന്നെയാണ് പിന്നെ ഈ ബീച്ചുകളും അതുപോലെ തന്നെയാണ് തിരമാലയുടെ ശബ്ദവും കാലിൽ വന്നു വെള്ളത്തിൻ്റെ ആ ഒരു ഉരസലും നമ്മൾക്ക് ഒരുപാട് ആസ്വദിക്കാൻ പറ്റുന്നതാണ് ഇപ്പം ജോലിയും അതിൻ്റെ ആ സ്ട്രെസ്സും അതിൻ്റെ കഷ്ടപ്പാടുകളെല്ലാം കുറച്ച് നേരത്തേക്ക് എങ്കിലും മറക്കാൻ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുപാട് സഹായിക്കാറുണ്ട് പിന്നെ മഞ്ഞുമൂടിയ മലകളിലോട്ട് പോവുകയാണെങ്കിൽ ഐസ് കേറ്റിങ് പോലുള്ള വിനോദങ്ങളിലും ഏർപ്പെടാം മഞ്ഞ് ഇപ്പം സതേൺ കൻട്രിസിലുള്ള ആൾകാർകൊക്കെ ആണെങ്കിൽ മഞ്ഞൊക്കെ കുറവായിരിക്കും അപ്പം അങ്ങനെ മഞ്ഞുമൂടിയ മലകളിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ മഞ്ഞും ആ തണുപ്പും ആ കാലാവസ്ഥയുമൊക്കെ ആസ്വദിക്കാനും വളരെ അധികം പ്രയോജനപ്പെടും ഇങ്ങനത്തെ ഹൈക്കിങ്ങുകൾ അതുപോലെ തന്നെ ഭൂമി അ പ്രകൃതിയുമായിട്ട് ഒരു ബന്ധം നില നിർത്താൻ ഇങ്ങനെയുള്ള ഹൈക്കുകളും ഈ ചെറിയ യാത്രകളൊക്കെ ഒരുപാട് മനുഷ്യരെ സഹായിക്കും